ഞങ്ങൾ വീട്ടില് കുറ അധികം സ്ഥലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് മിറ്റം കുറെ കാലമൊക്കെ ആയതുകൊണ്ട് കാട്ടുവള്ളി ഒന്നുമില്ല കച്ചറകളൊന്നുല്ല അപ്പം ഞങ്ങൾ പിന്നെ അടിച്ചുവാരില്ലേ മുറ്റം ഇങ്ങനെ അടിച്ചുവാരുവല്ലോ അപ്പം ചൂല് വച്ച് അടിച്ചു വാരുമ്പം കച്ചറയൊക്കെ ഇങ്ങനെ പറിച്ച് കളയും പറിച്ചിട്ട് എല്ലാം കൂടെ വാരിക്കോരി കൊണ്ടുപോയി കളയും അപ്പം പിന്നെ ക്ലീൻ ആയിട്ടിരിക്കും അതായത് കാടൊന്നും കയറില്ല പിന്നെ അതേപോലെതന്നെ നമ്മള് സൈഡിലൊക്കെ ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ചെമ്പരത്തിയൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട് അപ്പം എന്താ പറയുക അത് എല്ലാം നല്ല ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അതും പൂക്കളൊക്കെയായി നല്ല വൃത്തിക്ക് ഇരിക്കും പിന്നെ നമ്മുടെ വേസ്റ്റ് ഒന്നും വലിച്ചെറിയുനൊന്നും ഇല്ലല്ലോ അപ്പം നല്ല വൃത്തിക്ക് അങ്ങനെ ഇരിക്കും വീട് അതിന് ചുറ്റുമുള്ള പ്രദേശമൊക്കെ കാടൊക്കെ പറിച്ച് നാല് ഭാഗവും നന്നായി കാടൊക്കെ പറിച്ച് നന്നായി അടിച്ചു വാരുമ്പോൾ വൃത്തിയ്ക്ക് ഇരിക്കും